കോഴിനെ വളർത്തുന്ന ആളാണ് പക്ഷെ കോഴികൾക്കും ഇതേ പോലെ തന്നെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും കോഴികൾകൊക്കെ ഇങ്ങനെ കോഴി സൂക്കട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതൊക്കെ അങ്ങനെ നമ്മൾ അയിറ്റക്ക് ഒരു ഉഷാറ് കുറവ് കാണുമ്പോൾ നമ്മൾ അങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ പിന്നെ അങ്ങനെ വയറ്റിൽ നിന്ന് അങ്ങനെ വെള്ളം ഇതായിട്ട് അങ്ങനെയും പോകും അത് കാണുമ്പോൾ നമ്മൾ മരുന്ന് പനിൻ്റെ ഗുളിക അങ്ങനെ ഉണ്ടെങ്കിൽ പാരസെറ്റമൊൾ അങ്ങനെ പാരസിറ്റമോളുണ്ട് വീട്ടിൽ നിന്ന് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നുണ്ട് വീട്ടിൽ നിന്ന് പാരസിറ്റമോളും വെളുത്തുള്ളിയും മഞ്ഞൾപൊടിയും കൂട്ടിച്ചേർത്തിട്ട് അത് നിപ്പിളിലാക്കിയിട്ട് അതങ്ങനെ ഒഴിച്ച് കൊടുക്കും നല്ല പനിയും ചുടൊക്കെ ഉണ്ടാവും പനി ഇവറ്റങ്ങക്ക് ഈ സൂക്കേട് ഉണ്ടാവുന്ന സമയത്ത് പക്ഷെ കോഴികൾ വീട്ടിൽ ഉണ്ടാവുന്നത് നല്ലതാണ് പിന്നെ കാട എന്നെ കോഴികൾക്കും തന്നെ ഇതേ മാതിരി സൂക്കേട് കോഴി പേനിൻ്റെ ശല്യം വല്ലാതെ ഉണ്ടാവും ഉണ്ടാവും ചില സമയത്ത് എപ്പോഴൊന്നും ഉണ്ടാവില്ല ഈ ചൂട് കൂടുതലുള്ള സമയത്താണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇ പുകയിൻ്റെ ഇല പിന്നെ പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കും പിന്നെ കടയിൽ നിന്ന് ഈ ഇപ്പോൾ കോഴിപ്പേനിനൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഒരു സൈസ് പൊടികളുണ്ട് അത് അങ്ങനെ മേലുക്കുടിയൊക്കെ ഇതാക്കി ഇട്ട് കൊടുക്കും അങ്ങനൃ ഒക്കെ ആവുമ്പോൾ അങ്ങനെ മാറും പിന്നെ കാടനെ ഞാൻ വളർത്തിയായിരുന്നു കാടക്ക് പിന്നെ അങ്ങനെ അങ്ങനത്തെ ഒരു അസുഖമുള്ളതായിട്ട് എനിക്ക് അറിവില്ല പിന്നെ പശുക്കൾ ആണ് പശുക്കൾക്കും ഇതേമാതിരി കുളമ്പ് രോഗം അങ്ങനത്തെ രോഗങ്ങളൊക്കെ വരും കാലിൻ്റെ എടങ്ങനെ പഴുത്തു കൊണ്ട് ഇതായികാണ്ട് വൃണമായിട്ട് മുറിയായിട്ട് അയ്മ്മ നമ്മൾ ചൂടുവെള്ളം ഒക്കെ ഒഴിച്ചിട്ട് ഡെറ്റോളൊക്കെ ഇട്ട് കഴുകി മരുന്നൊക്കെ വാങ്ങി ഇതാക്കി അങ്ങനെ തേക്കണം പിന്നെ ആടുകൾക്കും ഇങ്ങനെ ഇതേ മാതിരി വയറിളക്കം ഉണ്ടാവും അങ്ങനെ വയറിളക്കം ഉണ്ടാവുമ്പോൾ നമ്മൾ കട്ടൻ ചായ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊടുക്കും